ഇവിടെ എന്നുവച്ചുകഴിഞ്ഞാല് എൻ്റെ നാട്ടിലേക്കു കൃഷി എന്നു പറയാനാണെങ്കില് നെല്ലൊക്കെയാണ് മെയിനായിട്ടു വരുന്നത് നെൽകൃഷിയാണവിടെ കൂടുതലും അതിന്നു തന്നെ ഈ പാടം നികത്തല് ആ പരിപാടി ഒഴിവാക്കുക പാടം നികത്തി അവിടെ പല പല ബിൽഡിങ്ങ് കെട്ടുന്നതും അങ്ങനത്തെ ഇതൊക്കെ ഒഴിവാക്കിവയ്ക്കുക പിന്നെ കർഷകർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്നു ചെയ്തുകൊടുക്കുക അവർക്ക് സർക്കാരില്നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നു ചെയ്തുകൊടുക്കുക പ്രോത്സാഹിപ്പിക്കണം കർഷകരെ ഒരിക്കലും പിന്നോട്ടു തള്ളാൻ പാടില്ല പിന്നെ അവർക്കാവശ്യമുള്ള ലോണ് ഇപ്പോള് കൃഷി തുടങ്ങണമെങ്കില് ലോണ് വേണമല്ലോ അങ്ങനെ അങ്ങനെന്ത് എന്തായാലും പൈസ വേണം പൈസയ്ക്ക് ആവശ്യം വരുമ്പോള് മൊത്തത്തില് ടൈറ്റായിരിക്കും അപ്പോള് അവർക്കുള്ള കൃഷി ലോണ് അതൊക്കെ കുറച്ചുംകൂടി എമൗണ്ടൊക്കെ കൂട്ടിയൊന്നു ശരിയാക്കിക്കൊടുക്കുക പിന്നെ എന്നുവച്ചുകഴിഞ്ഞാല് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ഇത്രയേ ഉള്ളൂ കൃഷി ചെയ്യാന് സ്ഥലം അതായത് വയല് നികത്തിലൊക്കെ ഒന്നു നിർത്തുക വയല് നികത്താനേ പാടില്ല പിന്നെ എന്നു വച്ചുകഴിഞ്ഞാല് പൈസേൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ ഈ രണ്ടു കാര്യങ്ങള് സെറ്റാണെങ്കില് കൃഷി അതേപോലെ തന്നെ കൃഷിയുടെ ആ പഴയ പൈതൃകം കാത്തു സൂക്ഷിക്കാം